നമ്മളുടെ പ്രദേശത്തും പുസ്തകശാലക ഉണ്ട് പുസ്തകശാല അത്യാവശ്യം വലിയ വികസനങ്ങൾ അങ്ങനെത്തെ ഒരു പുസ്തകശാല അല്ലെങ്കിൽ പോലും പുസ്തകശാല ഉണ്ട് വായിക്കാൻ ഒരുപാട് തരത്തിലുള്ള സാഹിത്യം മലയാള സാഹിത്യം ഒരുപാട് വായിക്കാറുണ്ട് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വായിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും മലയാള സാഹിത്യമാണ് മലയാള സാഹിത്യത്തിലെ ഒരു ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു ഇന്ദുലേഖയിൽ തുടങ്ങി ഇങ്ങോട്ടേയ്ക്കുള്ള മലയാള സാഹിത്യത്തിൻ്റെ ഒരു ഒരു കുറേ കൃതികൾ കുറേ എഴുത്തുകാർ പ്രത്യേകിച്ചും പേരെടുത്ത് പറയാവുന്ന പല എഴുത്തുകാരെയെക്കെ വായിച്ചിട്ടുണ്ട് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ പുസ്തകശാല പുസ്തകശാലയിലൂടെയും അവിടുന്ന് പുസ്തകങ്ങൾ എടുത്തും വിദ്യാലയത്തിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തും അല്ലാതെ പുസ്തകങ്ങൾ വാങ്ങിച്ചുമൊക്കെയും അങ്ങനെത്തെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്